കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രീതികളിൽ കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയാൻ ഒരുപാടുണ്ട് ലിംഗപരമായി ഉത്തരവാദിത്വങ്ങൾ കുടുംബ ഘടനകൾ സാമൂഹിക നിയമങ്ങൾ സാംസ്കാരിക മൂല്യങ്ങൾ ആചാരങ്ങൾ മത പ്രസ്ഥാനങ്ങളുടെ പുനർ ജീ കരണം ലിംഗപരമായ റോളുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആചാരങ്ങളാണെങ്കിൽ തന്നെ ഇന്ത്യ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് ഒ ഒരുപാട് ജാതി മതങ്ങളൊക്കെ ഉള്ളവർ ഒരുപാട് ആളുകളും മതസ്ഥരും തിങ്ങി പാർക്കുന്ന ഒരു രാജ്യമാണിത് ഇവിടെ അവരുടെ ആചാരങ്ങളും വേറെ വേറെ ആണുള്ളത് ഓ എല്ലാവർക്കും എല്ലാ മതക്കാർക്കും ഒരേ പോലത്തെ ആചാരങ്ങൾ അല്ല ഉള്ളത് കല്യാണത്തിന് എവിടെയെങ്കിലും മരണത്തിന് ആണെങ്കിലും ഹൗസ് വാമിംഗ് അങ്ങനെയുള്ള എന്ത് പരിപാടിക്കാണെങ്കിലും അവരവർ അവരവരുടെ മതത്തിനനുസരിച്ചാണ് ചെയ്യുന്നത് കേരളത്തിൽ സാംസ്കാരിക രീതികളിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ കുടുംബം കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അങ്ങനെ കുടുംബ വലിയൊരു കുടുംബത്തിലെത്തുമ്പോൾ ആ കുടുംബത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് അതൊക്കെയാണ് ഇതിൽ സാ സാംസ്കാരിക രീതികളിൽ കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങൾ